ഹലോ ദുബായ് ഹോട്ടലല്ലേ ആ ഞാനിവിടെ ഈ സാത്തിക്കൊലെ അടുത്തൊരു വീട്ടീന്നാണെ ഇന്ന് ഇന്നവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടോ ആ ഇന്നു വൈകീട്ടത്തേനേ ഒരു എട്ടു എട്ടു മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒരു ഒ ഓ ഞങ്ങൾക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് എട്ടു പത്തു പേര് അതിനായിട്ടു കുറച്ചു ഫുഡ് വേണമായിരുന്നേ എന്നാക്യാന്ന് അറിയാന് വേണ്ടിയായിരുന്നു എന്തൊക്കെയാ ഉള്ളെ വൈകിട്ട് പൊറാട്ടയാ പൊറോട്ടായ്ക്ക് കറി ആ ചിക്ക് പൊറാട്ടായും ചിക്കനും പിന്നെ വേറെന്താ ഒള്ളെ മീൻ ഐറ്റെം ഫിഷ് ബിരി ബിരിയാണിയുണ്ടോ ബിരിയാണി ഐറ്റെം ഫിഷ് ബിരിയാണി ഉണ്ടെങ്കില് ഒരു പത്തു പേർക്കുള്ള ഫിഷ് ബിരിയാണി പിന്നെ കുറച്ച് പൊറോട്ടായും പൊറോട്ടായും ചിക്കനും ആ പിന്നെ വേറേന്താണ് അതിപ്പോള് വൈകിട്ട് എപ്പഴത്തേന് എത്തിക്കാന് പറ്റും ആ ഒരെട്ടുമണിക്കു മുമ്പായിട്ട് എട്ടുമണിക്ക് മുമ്പായിട്ട് എത്തിക്കണേ പക്ഷേ ചൂടോടെ എത്തിക്കുമല്ലോ അല്ലേ ആ ദുബായ് ഉള്ള ഷാജി എന്നുപറയുന്നെ ആള് ൻ്റെ എൻ്റെ ഹസ്ബെൻറ്റിൻ്റെ ഫ്രണ്ടാണ്